ഹലോ അതെ പറഞ്ഞോളൂ മ് ക്യാബ് ആ ഉണ്ട് മാഡം മാഡം എത്ര മെമ്പേഴ്സ് ആണ് ഉള്ളത് ആറ് പേർ അപ്പോൾ ഒരു സെവൻ സീറ്റർ വണ്ടി ഏതായാലും പോരേ

നമുക്ക് ഇപ്പം സെവൻ സീറ്റർ ആയിട്ട് അവൈലബിൾ ഉള്ളത് ഇന്നോവ ഉണ്ട് പിന്നേ എർട്ടിഗ ഉണ്ട് ടവേര ഉണ്ട് എർട്ടിഗ മതി ഓക്കെ എർട്ടിഗയ്ക്കിപ്പോൾ പെർ ഡേ ടൂ ഹണ് ടൂ തൗസൻഡ് ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് അതിനുള്ളിലേ വരുള്ളൂ

ഇല്ല മാഡം നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം ഏകദേശം കാർ ഒക്കെ ആവുമ്പോൾ നമുക്കൊരു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒക്കെ മാക്സിമം വരുന്നുണ്ട് ആ അതിന് മുകളിലേക്ക് പോയാലാണ് നമുക്ക് അഡീഷണൽ വരുക മ് ആ ഓക്കെ മാഡം എപ്പോഴാണ് എത്തുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വണ്ടി അവിടെ എത്തിയിരിക്കും

ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് മ് ഓക്കെ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം മാഡം ട്രെയിൻ ആണോ മാഡം വരുന്നത്

ആ ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പോൾ ഓൾമോസ്ററ് സ്റ്റേ ഒക്കെ വരുന്നത് അതിൻ്റെ ബഡ്ജറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ മാഡ്ത് മാഡത്തിന് വാട്സപ്പ് ചെയ്തുതരാം അന്നേരം അതിനകത്തെ ഏതെങ്കിലും ചൂസ് ചെയ്യുവാണെങ്കിൽ യെസ് മാഡം ഞങ്ങൾ അവിടെ എത്തിക്കോളാം